എനിക്ക് ക്യാമറയിൽ പകർത്താൻ ഏറ്റവും ഇഷ്ടം പ്രകൃതിയാണ് പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അപ്രതീക്ഷിതമായി കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ അതു മൃഗങ്ങളായാലും ചില മരങ്ങൾ പുല്ല് ചെടി ഇങ്ങനെയുള്ള നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലും ചില സമയങ്ങളിൽ അത് ക്യാമറയിലൂടെ പകർത്തിയാൽ മാത്രമേ അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം നമുക്ക് കിട്ടുകയുള്ളു ചില സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചില കിളികൾ പാമ്പ് അങ്ങനെയുള്ള ജീവികൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടക്കിടെ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണുകയും കാണുമ്പോൾ ഭംഗിയല്ലാത്തതും എന്നാൽ ക്യാമറയിലൂടെ പകർത്തിയാൽ ഏറ്റവും ഭംഗിയുള്ളതായി കാണുകയും ചെയ്യുന്ന ചിത്രങ്ങളെ എടുക്കുവാനും അവ പ്രദർശിപ്പിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്